ഹലോ ആ ഗ്രീൻഹിൽസ് പബ്ലിക് സ്ക്കൂളല്ലേ ഇത് കോഴിക്കോടു നിന്ന് വിളിക്കുന്നതായിരുന്നു എൻ്റെ മക്കളെ ഒരു അഡ്മിഷൻ എടുക്കാൻ വിളിച്ചതായിരുന്നു അഡ്മിഷന് എന്തൊക്കെയാണ് ചോദിക്കുക ഓ എൽ കെ ജിയിലേക്കും രണ്ടാം ക്ലാസ്സിലേക്കും

ഇപ്പോൾ ചെറിയ കുട്ടിക്ക് എൽ കെ ജി ചേർക്കണം എന്ന് പറഞ്ഞാൽ നാല് വയസ്സായി മറ്റേ മകൾക്ക് ഏഴ് വയസ്സായി

പേര് നിഹാലും നൂഹയും

കോഴിക്കോട് മൈത്രി നഗർ ആയിട്ട് വരും

നാളെയാണോ ആ ആ ആ ഓക്കെ ഈ അഡ്മിഷന് എത്രയാകും ഫീയൊക്കെ ആണോ ആ അത് തുടക്കത്തിൽ തന്നെ അടക്കണോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടച്ചാൽ മതിയോ ഓരോ മാസം അല്ലെങ്കിൽ

ആ ആ

ആ ആ

ചെയ്യുന്നുണ്ട് ഈ ഏരിയയിലൊക്കെ വരുന്നുണ്ടോ ആ അതെ ആ ഉണ്ടല്ലേ ആ ആണോ ആ ഞാൻ ആലോചിച്ചിട്ട് പറയാം സ്ക്കൂൾ ബസ്സിൽ വിടണോയെന്ന് ഞാൻ ഒന്ന് ആ

ആ ആണോ ആ എപ്പോഴാണ് അഡ്മിഷനെന്ന് അറിയുമോ ഈ ഏതാ ദിവസം എങ്ങനെയാണ് ആ ആ ആ ഉണ്ട് ഉണ്ട് ആ ആ ആ ആ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ നാളെ അങ്ങോട്ട് വരാം സ്കൂളിലേക്കൊന്ന് വരാം ആ മക്കള കൂട്ടാം എന്നാൽ ഓക്കെ